എനിക്ക് കളിക്കാൻ ഇഷ്ടമുള്ള കായികം എന്ന് പറയുന്നത് ഫുട്ബോൾ ആണ് കാരണം ചെറുപ്പം മുതൽ തന്നെ ഈ നാട്ടിൽ ഉള്ള ഒരു കലയാണ് ഫുട്ബോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും ശരി സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പോവുക കളിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ മെയിൻ കളി ഫുട്ബോൾ കളിയാണ് അല്ലെങ്കിൽ വോളിബോൾ അതല്ലെങ്കിൽ ബാറ്റ്മിൻ്റൺ അങ്ങനെയുള്ള കളികളാണ് കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് അതില് കൂടുതലുള്ളത് പന്ത് കളിയാണ് അത് ചെറുപ്പം മുതലുള്ള അതിനോടുള്ള അഭിരുചി ആണ് അതിൽ ഉണ്ടാകാനുള്ള കാരണം എൻറെ വീട്ടിൽ നിന്നുള്ള നമ്മുടെ പഴയ രീതി അനുസരിച്ച് അതിലുപരി ഉള്ള ക്രിക്കറ്റ് ഒന്നുമില്ല അതൊക്കെ ഈ കാലഘട്ട പുതിയ കാലഘട്ടത്തിൻ്റെതായ കളികൾ ഒന്നുമില്ല മെയിൻ ആയിട്ടുള്ള കളികൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴാണ് കളികളുടെ എണ്ണം ഒക്കെ കൂടിയത് പണ്ട് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് പാടം കൊയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി കളിക്കാം അല്ലെങ്കിൽ അമ്പലപ്പറമ്പുകളിൽ കളിക്കാം ഇതിനൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ അന്നത്തെ തലമുറ പഠിച്ചു ചെയ്തുവന്നിരുന്നത് ഈ ഫുട്ബോൾ കളിയാണ്